ഈ ഇടയ്ക്ക് ഞാനൊരു റണ്ണിങ് ഷൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ബ്രാൻഡ് തന്നെയാണ് മേടിച്ചത് ഏകദേശം എഴുനൂറ്റി എഴുപത് റേഞ്ച് ആണ് റേറ്റ് വന്നത് അപ്പൊൾ ഡെലിവറി പറഞ്ഞ സമയത്തേക്കാളും ഒരു ദിവസം കഴിഞ്ഞ് ലേറ്റ് ആയിട്ടാണ് വന്നത് ഷൂ ക്വാളിറ്റി മോശായിരുന്നു ഒന്നാമത്തെ കാര്യം പഴയ ഏതോ ഷൂവാണ് പൊടി പിടിച്ചിരുന്ന സംഭവമായിരുന്നു അപ്പൊൾ അത് ക്വാളിറ്റി മോശം പിന്നെ ലേയ്സും കാര്യങ്ങളും അതും വലിയ ബലവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ലേയ്സ് ആയിരുന്നു അതിന് അതിൻ്റെ സോളും അതുപോലെ നമ്മുടെ ഈ ഉപ്പൂറ്റിൻ്റെ അവിടെയുള്ള സംഭവങ്ങളൊക്കെ സോഫ്റ്റ് ആയിട്ട് വരേണ്ട അവിടെയൊക്കെ ഭയങ്കര സ്റ്റിഫായിട്ട് അതായത് പഴകിയൻ്റൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അപ്പൊൾ സംഭവം ഞാനത് റിട്ടേൺ അടിച്ചിട്ടുണ്ട്